ഞങ്ങളുടെ നാട്ടിലങ്ങനെ പ്രത്യേക തരത്തിലുള്ള നെയ്ത്ത് തുന്നൽ രീതികൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാനും മാത്രം ഒന്നുമില്ല ഞങ്ങളങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെ വസ്ത്രങ്ങൾ നെരിക്കുന്ന രീതിയൊന്നും എനിക്ക് പരിചയത്തിലില്ല അങ്ങനെ വീട്ടിലും ആർക്കും അങ്ങനെ പരിചയത്തിലില്ല മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ തുണി വാങ്ങിയിട്ട് തയ്ക്കും പിന്നെ അങ്ങനെ ഡ്രസ്സുകളൊക്കെ അളവ് ശരിപ്പെടുത്തും എന്നല്ലാതെ അങ്ങനെ സവിശേഷമായിട്ടുള്ള നെയ്ത് തുന്നൽ രീതികളൊന്നും ഇല്ല പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ട് പ ഇത് വെച്ചതു പോലെ വെച്ചിട്ടുള്ള എന്തോ ഒരു രീതി തുന്നുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറന്നു പോയി പിന്നെ ഇവിടിപ്പോൾ ഇ ഇതിൻ്റെ അടുത്ത് പാലക്കാട് ജില്ലയിലുള്ള കുത്താമ്പുള്ളി അവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അതൊരു നെയ്ത്ത് ഗ്രാമമാണ് അങ്ങനെ അവിടുത്തെ അവിടെയായിട്ട് സെറ്റ് സാരി കല്ല്യാണ സാരി അങ്ങനത്തെ പല സാധനങ്ങളും അവർ ആ ഗ്രാമത്തിലുള്ളവർ തന്നെ നെയ്യും എന്നിട്ടവിടുന്ന് നേരിട്ട് വേടിക്കുമ്പോൾ വളരെ വിലക്കുറവായതു കൊണ്ട് വിവാഹ സമയങ്ങളിലൊക്കെ കുറേ വസ്ത്രം എടുക്കാനുള്ളവരൊക്കെ ആ ഗ്രാമങ്ങളിൽ നേരിട്ട് പോയിട്ട് നെയ്ത വസ്ത്രങ്ങൾ വാങ്ങും അപ്പോൾ ഭയങ്കര വിലക്കുറവിൽ കിട്ടും അന്നേരെ പാലക്കാട് അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് ഇതേമാതിരി നെ ഭയങ്കര നെയ്ത്തിന് ഭയങ്കര പ്ര പ്രശസ്തി ഉള്ളതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും അങ്ങനെ ഒരു നെയ്ത് തുന്നൽ രീതികളുള്ളതായിട്ട് എനിക്ക് പരിചയത്തിലില്ല ഞാൻ അതിനു വേണ്ടി ശ്രമങ്ങളും നടത്തിയിട്ടില്ല